അപ്പോൾ നമുക്കിപ്പോൾ കൂടുതലായിട്ടും ജോലി സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രെഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരാളുടെ കീഴിൽ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പ്രെഷറും കാര്യങ്ങളുമൊക്കെ വരുമ്പം നമുക്ക് ചിലപ്പോൾ ഒത്തുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ നല്ല രീതിയിലുള്ള ജോലി കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഉത്തരവാദിത്വവും കാര്യങ്ങളും തലയിൽ വെച്ച് തരുമ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞ സമയത്തൊന്നും തീർത്തു കൊടുക്കാൻ പറ്റിയെന്നു വരില്ല അപ്പം ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിയും ഇപ്പം ജോലിയെന്നു ചിലപ്പം രാജി വെക്കേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുകാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ എനിക്ക് ജോലിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മെൻ്റൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് ഞാൻ അതിന് എന്താ പറയുക ഇപ്പം ഞാൻ നന്നായിട്ട് ജോലിയെടുത്തിട്ടാണ് കാണിച്ചു കൊടുത്തത് എന്നിട്ട് എന്താ പറയുക ഇപ്പം ഞാൻ നന്നായിട്ടു ജോലിയെടുത്തത് കൊണ്ട് ആ സ്ഥാനത്തേക്ക് എൻ്റെ എനിക്ക് ജോലിക്കു കയറാൻ വേണ്ടിയിട്ട് സാധിച്ചു എൻ്റെ മേലധികാരിയുടെ മുന്നിൽ എനിക്ക് നല്ല രീതിയിൽ ചെയ്തു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അങ്ങനെയാണ് ഞാനതിനൊരു പരിഹാരമായിട്ട് കാണിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം